ഞാൻ ഒരുപാട് വാർ വാർത്തകളുടെ ഇത് വായിക്കാറുണ്ട് അതുപോലെത്തന്നെ കേ എന്താ പറയുക വാർത്ത വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ അതേപോലെത്തന്നെ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഫോണിലൂടെയാണെങ്കിലും ന്യൂസിലൂടെയാണെങ്കിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ടി വിയിലൂടെ ഒക്കെയാണെങ്കിലും കാണാറുണ്ട് ഓരോ വാർത്തകളും ഇപ്പോൾ ചാനലുകളും ഒക്കെ ഇപ്പം പ്രധാനമായിട്ടും കാണുന്നത് മൂന്ന് ചാനലുകൾ ആണ് കേരളാ വിഷൻ അതുപോലെത്തന്നെ വയനാട് വിഷൻ പിന്നെ ഒരു ട്വൻറ്റി ഫോറെന്ന് പറയുന്ന ചാനൽ ആ മൂന്ന് ചാനലും ആണ് പ്രധാനമായിട്ടും കാണുന്നത് ആ പിന്നെയും വേറെ ചാനലുകളൊക്കെയുണ്ട് വാർത്തകളുടെ അതൊക്കെ കാണാറുണ്ട് പക്ഷെ കൂടുതലും പ്രധാനമായിട്ട് ഈ മൂന്ന് വരി ചാനലുകളാണ് കാണല്